ഒരു മലയാളിയായതില് ഞാന് ഏറ്റവും അധികം അഭിമാനിക്കുന്നു മലയാളത്തിലേറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ് അച്ഛന് അമ്മ എന്ന ആദ്യം പഠിച്ച വാക്കുകള് തന്നെയാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് നമ്മള്ക്ക് ഏറ്റവും നല്ല രീതിയില് ഉപയോഗിക്കാവുന്ന ഒരു ഭാഷ തന്നെയാണ് മലയാളം അത് ആര്ക്ക് വേണമെങ്കിലും എപ്പോള് വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന ഒരു ഭാഷയാണ് അത്രയും സിമ്പിളായൊരു ഭാഷയാണ് ഞാനൊരു മലയാളിയായതിലേറ്റവും അധികം അഭിമാനിക്കുന്നു നമ്മുടെ മലയാള ഭാഷയിലാണ് ഏറ്റവും അധികം പദ്യങ്ങളും നോവലുകളും ഒക്കെ തയ്യാറായിട്ടുള്ളത് സുഗതകുമാരിയെ പോലുള്ള കവയത്രികളും എംടി വാസുദേവന് നായരെ പോലുള്ള നോവലിസ്റ്റുകളും ഒക്കെ ജന്മമെടുത്തത് ബഷീര് മുഹമ്മദ് ബഷീര് അവരെപ്പോലുള്ള നല്ല നോവലിസ്റ്റുകളൊക്കെ ജന്മമെടുത്തത് മലയാളത്തില് തന്നെയാണ് ഇവരുടെയൊക്കെ കഥകളും കവിതകളും ഒക്കെ ഏറ്റവും പ്രശംസ ആര്ജിക്കുന്നതാണ് അത്രയും നല്ല ഒരു ഭാഷയാണ് മലയാളം മലയാളത്തിലാണ് ഒരു ഒരു ഏറ്റവും നല്ല കൃതികളും എല്ലാം ഉണ്ടായിട്ടുള്ളത് അതിന് ഏറ്റവും സഹായകരമായൊരു ഭാഷ മലയാളമായ് മലയാളം തന്നെയാണ് മലയാളം പഠിച്ചതിനും ഒരു മലയാളിയായി ജനിച്ചതിനും ഞാന് ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്നു കാരണം നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അത് നമ്മള്ക്ക് മറക്കാന് പറ്റില്ല ആ ഭാഷയില് വരുന്ന എല്ലാ സാഹിത്യ കൃതികളുമെല്ലാം ഏറ്റവും നല്ല രീതിയില് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും എളുപ്പമായ ഉച്ചാരണത്തിലും ഭാഷയിലുമാണ് അവര് തയ്യാറാക്കിയിട്ട് നോവലിസ്റ്റുകള് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ ഒരുപാട് കവിതകള് മലയാളത്തില് രചിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഭൂമിയെക്കുറിച്ചും നമ്മുടെ കേരളത്തെക്കുറിച്ചുമൊക്കെ എന്നാ പ്രതിപാദിക്കുന്ന ഒരുപാട് നോവലുകളും കവിതകളുമുണ്ടായിട്ടുണ്ട് മലയാളത്തില് അതൊക്കെ ഒരുപാട് പുരസ്കാരങ്ങള്ക്കൊക്കെ അര്ഹതയുള്ളതാണ് അങ്ങനെ ഒരൊത്തിരി പുരസ്കാരങ്ങള് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാഷയായ മലയാളം നമുക്കും പഠിക്കാവുന്ന രീതിയില് തയ്യാറാക്കി കിട്ടിയിരിക്കുന്നതില് നമുക്കും അഭിമാനിക്കാം മലയാള ഭാഷയില് മലയാളത്തില് സംസാരിക്കുന്നതില് നമ്മുടെ കുട്ടികള് അഭിമാനം കൊള്ളണം മറ്റ് ആംഗലേയ ഭാഷകള് സംസാരിക്കുന്നതിലും നമ്മുടെ മാതൃഭാഷ സംസാരിക്കുന്നതിനോട് നമ്മള് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അതിനുള്ള സാഹചര്യം അവര്ക്കൊരുക്കി കൊടുക്കണം ഏറ്റവും പ്രധാനം അതിന് നമ്മുടെ മലയാള ദിനപ്പത്രങ്ങളൊക്കെ കുട്ടികളെക്കൊണ്ട് വായിപ്പിക്കണം എന്നാലെ കുട്ടികള്ക്ക് ഏറ്റവും അറിവ് കിട്ടുകയുള്ളു അതിനുള്ള ക്രമീകരണങ്ങള് വീടുകളിലും മറ്റും ചെയ്ത് കൊടുക്കണം സ്കൂളുകളിലും അതിനുള്ള ക്രമീകരണങ്ങളുണ്ടാകണം മലയാളം ഒരു ഭാഷ പഠിപ്പിക്കുന്നതിന് അതിന് നമ്മള് ഇമ്പോര്ട്ടന്സ് കൊടുത്താ തന്നെ അതിന്റേതായ ഇമ്പോര്ട്ടന്സ് കൊടുത്ത് വേണം പഠിപ്പിക്കാന് മറ്റ് ഭാഷകളില് സംസാരിക്കണമെന്നൊക്കെ കുട്ടികളെ നിര്ബന്ധിക്കുന്നതിന് പകരം മലയാളത്തില് അവരുടെ മാതൃഭാഷയില് സംസാരിക്കാന് നമ്മള് പ്രോത്സാഹനം കൊടുത്ത് അവരെ അതിന് വേണ്ടി ഒരുക്കണം എന്ത് കുട്ടികള്ക്ക് അക്ഷരങ്ങള് കൃത്യമായി എഴുതാനും വാക്കുകള് അത് കൃത്യമായി യോജിപ്പിച്ചെഴുതാനുമൊക്കെ സ്കൂള് തലത്തില് വിദ്യാഭ്യാസം കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ഇപ്പോഴും നല്ലത് അവരേത് രാജ്യത്തില് ഏത് രാജ്യങ്ങളില് പോയാലും ഏത് മേഖലയില് ജോലി ചെയ്താലും ഒരു മലയാളിയായതില് അവര് അഭിമാനിക്കണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വീടുകളില് നിന്നും സ്കൂള് തലങ്ങളില് നിന്നും ഉണ്ടായിരിക്കണം